കളികൾ നമ്മളുടെ മനസ്സിൻ്റെ ടെൻഷനെ മാറ്റും അതുപോലെ തന്നെ എല്ലാവരുമായിട്ട് നല്ല ഇത് മിംഗിൾ ചെയ്യാൻ പറ്റും പിന്നെ മനസ്സിന് ഏറ്റവും നല്ല ഉന്മേഷം കിട്ടുന്നത് കളികളിലാണ് കുടുംബ ബന്ധങ്ങൾ ഈ ഊട്ടി ഉറപ്പിക്കുവാനും കളികൾ സഹായകരമാണ് ചീട്ടു കളി ആണെങ്കിലും അതുപോലെ ക്യാരംസ് ബോഡ് ആണെങ്കിലും ചെസ്സ് ആണെങ്കിലും ഏറ്റവും നല്ല മനസ്സിന് ഏറ്റവും നല്ല ഉന്മേഷം തരുന്ന കളികളാണ് ചെസ്സ് കളിയാണ് നമ്മുടെ ബ്രെയിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന കളിയാണ് ചെസ്സ് അതുപോലെ തന്നെ ചീട്ടു കളിയാണെങ്കിലും അതുപോലെ തന്നെ ക്യാരംസ് ബോഡ് എല്ലാം തരം കളികളും മനുഷ്യൻ്റെ മനസ്സിനെ ഏറ്റവും ഉന്മേഷം ട്രെസ്സ്ഡ് ഉള്ള സമയം നമ്മുക്കെല്ലാം മനസ്സിൻ്റെ എല്ലാ പിരിമുറുക്കങ്ങളും മാറുവാൻ കളികളിൽ ഏർപ്പെടുന്നതാണ് ഏറ്റവുംനല്ലത് നല്ല നല്ല കുടുംബബന്ധത്തിനും ഏറ്റവും നല്ലത് കളികളാണ് നിസ്സാരം കൊച്ചു കുട്ടികളുടെ കൂടി കളിക്കുന്ന സമയത്ത് ഒരു ഒരു ഏണിയും പാമ്പും കളിക്കുന്നത് പോലും നല്ല ഒരു ഒരു ഒരു ഒരു ഉന്മേഷത്തിൻ്റെ ഒരു ഇതാണ് ചെസ്സ് കളിക്കുകയാ ണെന്നുണ്ടെങ്കിൽ നമ്മളെ ബുദ്ധി ഏറ്റവും അധികം ഉത്തേജിപ്പിക്കുകയാണ് ചെസ്സ് കളി അതേപോലെ തന്നെ ചീട്ടുകളി ചീട്ടുകളിയും നല്ല ഇതാണ് ചീട്ടുകളിയിൽ പല സൈസ് ചീട്ടുകളിയുണ്ട് റമ്മിയുണ്ട് അടുത്താരതി ഉണ്ട് വിതാംപരിശ് ഉണ്ട് അങ്ങനെയുള്ള എല്ലാ കളികളും മനസ്സിനെ ഏറ്റവും കൂടുലും ബുദ്ധിയെ ഏറ്റോവും കൂടുതലും ഇപ്രെസ്സ് ചെയ്യുന്ന കളികളാണ് ഈ